എബീസ് സൂപ്പർ മാർക്കറ്റ് മാനന്തവാടി ഏതൊക്കെ എന്തിന് വേണ്ടിയിട്ടാർന്നു എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാർന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് ഓക്കേ ഹോൾസെയിൽ റേറ്റിനാണ് സാധനങ്ങൾ വേണ്ടത് അല്ലെ എന്തൊക്കെ വേണം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എങ്ങനെയാ എന്തിനൊക്കെയുള്ള പച്ചക്കറിയാണ് വേണ്ടത് സാമ്പാറിനുള്ളതും ഉപ്പേരിക്കുള്ളതും വേണം അ പയറൊക്കെ എത്ര കിലോ വെച്ച് വേണം അഞ്ച് കിലോ ഒക്കെ നിർത്താം അഞ്ച് കിലോ പയർ വേണം പിന്നെ ആ ഹോൾസെയിൽ ആയിട്ട് കിട്ടും കിലോയിന് ഇരുപത്തി അഞ്ച് രൂപ വെച്ചാണ് വരുന്നേ അ വണ്ടി ഞങ്ങൾ സെയിൽ ചെയ്ത് തരും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ച് തരും വേണ്ടത്ര സാധനങ്ങൾ ഒന്ന് ലിസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാർന്നു നമുക്കിപ്പം മുപ്പത്തെട്ട് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ട്ടോ ഉള്ളിയുടെ വില അ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കാരറ്റ് അ അ കാരറ്റ് പത്ത് കിലോ വേണമല്ലേ ആ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് മാനന്തവാടിയിൽ നിന്ന് എത്ര കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് വരുന്നേ എവിടുത്തേയ്ക്കാണ് നമ്മൾ ഈ സാധനങ്ങൾ എത്തിച്ച് കൊടുക്കേണ്ടത് നാല് കിലോമീറ്റർ പരിധിയിൽ അ അപ്പോൾ ഈ കോളിലേക്ക് ഈ നമ്പറിലേക്ക് കണക്റ്റ് ചെയ്താൽ പോരെ നിങ്ങൾടെ സാധനം എപ്പോഴത്തെനാണ് വേണ്ടത് ഏത് സമയത്തേക്കാ എത്തിക്കേണ്ടത് അ ഓക്കേ